അതൊരു വന്നത് ഒരു ട്രൻറ്റിൻ്റെഭാഗമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രൻഡാന്ന് വച്ച രീതിയിൽ വളർന്നത് കൊണ്ട് കുറെ പേർ ഇഷ്ടത്തോടെ വളർത്തുന്നവരുണ്ട് പിന്നെ ഉച്ചയോട് കൂടി കാലാവസ്ഥയൊക്കെ ഒരു എന്താ പറയുക റിലാക്സേഷനും ഡിപ്രഷൻ മാറ്റാനൊക്കെയായിട്ട് കുറേപ്പേർ വളർത്തുന്നുണ്ട് പിന്നെ ഭംഗിക്കും അലങ്കാരത്തിനും കൂടി കുറേപ്പേർ വളർത്തുന്നു അങ്ങനെ പല രീതിയിൽ എന്താ പറയുക ആൾക്കാര് അടുക്കളത്തോട്ടവും പൂച്ചെടികളും പൂന്തോട്ടവുമൊക്കെ എന്താക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതാണ് മെയിനായിട്ട് അടുക്കളത്തോട്ടം വളർത്താൻ കൂടുതലായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വിഷ രഹിത പച്ചക്കറികൾ കിട്ടാനും കാരണം നമുക്ക് പറമ്പുള്ള അത്രയും കാലം നമുക്ക് നമ്മളുടേതായ രീതിയില് നമുക്കാവശ്യമായ സാധനം കുറച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ അത് കൃഷി ചെയ്തെടുക്കുവാണെങ്കില് അത്രയും വിഷം ഇല്ലാത്തത് കഴിച്ചൂടെ എന്ന രീതികൾ കൊണ്ടും മലയാളികൾ കൂടുതലായിട്ട് അടുക്കളത്തോട്ടം നിർമ്മിക്കാനുള്ള കാരണമായിട്ട് വരാറുണ്ട് അതാണ് മെയിൻ പിന്നെ സ്ഥലം ഉള്ളവർ എല്ലാവരും ചെയ്യാറുണ്ട് ഇപ്പം ടെറസിൽ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും പച്ചക്കറികളും കാര്യങ്ങളും വേണം വേണ്ടത് കൊണ്ടും അമിതമായ വിഷം അടിച്ച് വരുന്നത് അടുക്കള തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം നിർമ്മിച്ച് മുന്നോട്ട് പോകും അതാണ് മെയിനായിട്ടുള്ള കാരണം അങ്ങനെ എല്ലാം നിർമ്മിക്കുന്നുണ്ട് പുതിയ ട്രെൻഡായി മാറുകയും അങ്ങനെ കുറെ പേര് നിർമ്മിക്കുന്നുണ്ട് മെയിനായിട്ട് വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിചെയ്യുന്നു